ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി ഫ്രാങ്ക് റിബറി ഫ്രാൻസ് ബെക്കംബോർ പിന്നെ ഡിലൈറ്റ് യോർക്ക് അതുപോലെ തന്നെ സച്ചിൻ തെണ്ടുൽക്കർ വിരാട് കൊഹ്ലി ഹർദ്ദിക് പാണ്ട്യ ലൂയിസ് ഹാമിൽട്ടൺ